നമുക്ക് ഇവിടെ വിനോദ സഞ്ചാരങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റുള്ള രാജ്യങ്ങൾ സംസ്ഥാനങ്ങളും രാജ്യങ്ങളും ആൾക്കാരൊക്കെ ഇവിടെ നമുക്ക് അവരുടെ നല്ല ലാംഗ്വേജ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചു പിന്നെ അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്ഥലമൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റടുത്ത് അതിൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് ജോലി ലഭിക്കുന്നുണ്ട് വീട്ടുകാർക്ക് പിന്നെ ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അവർക്ക് വിറ്റ് വരുമാന മാർഗ്ഗം അങ്ങനെ ഒക്കെ വിനോദ സഞ്ചാരങ്ങളും ഉണ്ട് നമുക്ക് ഒത്തിരി നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഉള്ള നല്ല നല്ല കാര്യങ്ങൾ കാരണം ഒരു വിനോദ സഞ്ചാരം വരുമ്പം അത് ഒരു നാടിൻ്റെ വളർച്ചയാണ് ആ വളർച്ചയ്ക്ക് ആ നാട്ടിലുള്ളവർ തന്നെ മുൻകൈ എടുത്ത് നിൽക്കുകയാണ് അപ്പോൾ അവരുടേതായ ചെറിയ ചെറിയ വ്യവസായങ്ങൾ അവർ വികസിപ്പിക്കുന്നു മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരെ അവരെ സ്വീകരിക്കുന്നു അപ്പോൾ അവരുടേതായ ലാംഗ്വേജ് അവരുടെ ഭാഷ കാര്യങ്ങളും മനസ്സിലാക്കുന്നു അങ്ങനെ ഓരോരോ അറിവ് നമ്മളിലേക്ക് പകർത്തി തരികയാണ് കൂടുതലും അവർ ചെയ്യാറുള്ളത്